ഹലോ നമസ്കാരം സർ പറയൂ ആ അതെ അതെ ആ ഓക്കെ വൈ ഫൈ പ്രോബ്ലം ആണോ

ഐ സെവൻ ഐ ഫൈവാണോ അത് ഐ ത്രീ അല്ലേ

ഓക്കെ ഇതിൻ്റെ ഏത് എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് തുടങ്ങിയത് ഈ പ്രശ്നം

ആ രണ്ട് ദിവസമേ ആയിട്ട് ഉള്ളൂ അതുവരെ സ്മുത്തായി യൂസ് ചെയ്യാൻ കഴിഞ്ഞല്ലേ ആ ഇപ്പം എങ്ങനെ ഇത് സ്ഥിരമായിട്ട് ഈ പ്രശ്നം ഉണ്ടോ അതോ ഇടയ്ക്ക് ഇടയ്ക്ക് ആണോ ഉണ്ടാകുന്നത് ഓക്കെ മിക്കവാറും അത് എന്താ സോഫ്റ്റ്വെയറിൻ്റെ കംപ്ലെയിന്റ് തന്നെ ആയിരിക്കും ഇപ്പം നല്ലൊരു മാർഗം എന്താ ആ പറയു പറയു ഷോറൂമിൽ വരേണ്ടത് അത് നിങ്ങൾ ഇപ്പം ഒരു കാര്യം ചെയ്യ് ഇത് നല്ല നല്ല സംഭവം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പവർ ബട്ടൺ ഉണ്ടല്ലോ ആ പവർ ബട്ടൺ ഒരു ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് നോക്കിയാൽ മതി അത് ചെയ്ത് നോക്കിയിരുന്നോ

ഓക്കെ അപ്പോൾ എന്തായാലും ഷോറൂമിലേക്കൊന്ന് വരേണ്ടി വരും

ഇ ഇപ്പോൾ ഓഫറിൽ ഓഫറിതായിട്ട് ഇരുപതിൽ കൊടുക്കുന്നുണ്ട്

എങ്ങനെ എങ്ങനെ ആണ് മനസ്സിലായില്ല ഇ എം ഐ ഉണ്ടല്ലോ

ആ ഓക്കെ ഇന്ന് ഓപ്പൺ ഇന്ന് അതെ ഇന്ന് ഓപ്പൺ ആണ് ഇന്ന് ഓപ്പൺ ആണ് ഒരു അഞ്ചര ആകുമ്പോൾ ഷോപ്പ് ക്ലോസ് ചെയ്യും അപ്പോൾ അതിന് മുന്നേ വന്നാൽ നമുക്ക് ഇന്നോ നാളേയ്ക്ക് ഒക്കെ എന്ത് ചെയ്യാം സാധനം റെഡി ഓക്കെ ഓക്കെ നമസ്കാരം ഓക്കെ